നമ്മുടെ കുട്ടികളെ മാതൃഭാഷ പഠിപ്പിക്കുന്നതിനായി വിദേശത്ത് പോകുന്ന നമ്മുടെ പേരെൻറ്റ്സ് നമ്മുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരുവാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക കാര്യം ഇന്ന് നമ്മുടെ മലയാളഭാഷ നമ്മളിൽ നിന്ന് ഒത്തിരി അകന്ന് നില്ക്കുകയാണ് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും ആണ് പോകുന്നത് എന്നാലും നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ മാതൃഭാഷയെ നമ്മളൊരിക്കലും മറക്കാതിരിക്കാൻ നമ്മള് മലയാളം മീഡിയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർക്കുകയും മലയാളാക്ഷരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം നമ്മുടെ ഭാഷ മലയാളമാണെന്ന് അതുങ്ങളെ ബോധ്യപ്പെടുത്തുക വിദേശത്ത് ചേക്കേറുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളറിഞ്ഞിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാട്ടില് തന്നെ നിർത്തി പഠിപ്പിക്കുവാൻ നിങ്ങൾ നിങ്ങള് വിചാരിക്കുക നിങ്ങളുടെ അതിന് വേണ്ടി മലയാളത്തില് നമ്മുടെ മാതൃഭാഷയായ മലയാളം മീഡിയം സ്കൂളില് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർക്കുകയും മലയാളാക്ഷരങ്ങളതുങ്ങൾക്ക് പറഞ്ഞ് കൊടുക്കുകയും നാളെ ഒരു സമയത്ത് മലയാളം അതുങ്ങളോട് സംസാരിക്കുവാനും ഓരോ അക്ഷരങ്ങളും ഇംഗ്ലീഷിൽ സംസാരിക്കാതെ ഇരിക്കാനും മലയാളം നല്ലപോലെ പഠിക്കാനും നമ്മടെ ബൈബിളുകളൊക്കെ ബൈബിള് വായിക്കാനും നമ്മുടെ ഓരോ പ്രാർത്ഥനകള് ചൊല്ലുവാനും അതുങ്ങളെ പഠിപ്പിക്കുക അതേപോലെ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു മാസിക കയ്യില് കിട്ടിയാലത് വായിക്കാനിന്നത്തെ തലമുറകൾക്ക് ഭയങ്കര പ്രയാസമാണ് കാര്യം അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന യുഗമാണല്ലോ അപ്പോള് ആ യുഗത്തിൽ നിന്ന് നമ്മളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുവാനും അത് മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കുവാനും അവരെ പഠിപ്പിച്ച് നമ്മുടെ നാടിന് ഒരു മാതൃകയാക്കുവാനും ഇന്ന് വിദേശത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങള് അത് മനസ്സിലാക്കുക അത് പ്രയോജനപ്പെടുത്തുക കാര്യം ഇന്ന് നമ്മുടെ നാട്ടില് മലയാളം മീഡിയം സ്കൂളുകളൊക്കെ ഇപ്പോഴുമുണ്ട് നല്ല രീതിയില് നല്ലതുപോലെ നടക്കുന്ന സ്കൂളുകളുമുണ്ട് അതിലേക്ക് നമ്മള് നമ്മള് കുഞ്ഞിലേ പഠിച്ചത് നമ്മുടെ മാതൃഭാഷയാണ് അപ്പോള് അത് നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുവാനും നല്ലൊരു മാതൃത്വത്തിലേക്ക് വളർത്തിയെടുക്കുവാനും നമ്മുടെ ഈ പുതിയ തലമുറയ്ക്കാകണം മലയാളം കുറച്ച് കുറച്ച് സംസാരിക്കാം എന്ന് പറയാതെ മലയാളം നല്ല വ്യക്തമായി സംസാരിക്കുവാനും അത് ക്ലിയറായി പോകുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാതാപിതാക്കളാണ് അതിന് പ്രാപ്തരാക്കണ്ടത് നമ്മുടെ ജോലി കാര്യങ്ങളുമായി നമ്മള് പല സ്ഥലങ്ങളിലായിരിക്കും എങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് മാതൃഭാഷ പഠിപ്പിക്കുവാനും അത് നല്ല രീതിയിൽ അതുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കാനും മലയാളം എന്നന്ന നമ്മുടെ കേരളത്തിൻ്റെതായ തനിമയെക്കുറിച്ച് അതുങ്ങൾക്കറിയുവാനും എല്ലാം നമ്മള് മാതാപിതാക്കളാണ് അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ ജോലി സംബന്ധമായി നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ പോലും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തിൽ തന്നെ നിർത്തി പഠിപ്പിക്കുവാനും നല്ലൊരു വിദ്യാഭ്യാസം അതുങ്ങൾക്ക് കൊടുക്കുവാനും മാതൃഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനും എല്ലാം നമുക്ക് കഴിയണം അതിനായിട്ട് നമ്മളോരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയില് വളർത്തുവാനും പഠിപ്പിക്കുവാനും നല്ലൊരു വിദ്യാഭ്യാസം അതുങ്ങൾക്ക് കൊടുക്കുവാനും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മുടെ സ്കൂള് ഇന്ന് അന്യം നിന്ന് ഒത്തിരി സ്കൂളുകള് നമ്മളിൽ നിന്ന് പോകുവാണ് കാര്യം എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിച്ചാൽ നമ്മുടെ മലയാളം നമ്മളറിഞ്ഞിരിക്കണ്ടേ മലയാളത്തില് നമുക്ക് എന്നായെങ്കിലും എഴുതാനും വായിക്കാനുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നമ്മള് ജസ്റ്റ് നമ്മുടെ മാതൃഭാഷ നല്ല കറക്റ്റായിട്ട് പറയാനും പ്രവർത്തി പഠിച്ചെടുക്കുവാനും എല്ലാം നമ്മള് നല്ല കരുത്തും കരുതലുമായിരിക്കണമെന്ന് മാതൃഭാഷ നല്ല പോലെ പഠിച്ചെടുക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത് പഠിപ്പിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു